ഇതിപ്പം മഴക്കാലമാണല്ലോ മഴക്കാലത്ത് പുഴയുടെ അരികിലുള്ള കൃഷികളൊക്കെ വെള്ളപ്പൊക്കം വഴി നശിച്ചുപോകാം ഫോർ എ നെല്ല് ഒക്കെയുണ്ടെങ്കിൽ നെല്ല് വെള്ളത്തിൽ മുങ്ങാം പിന്നെ വാഴക്കൃഷി ഉണ്ടെങ്കിൽ വാഴയുടെ കൂമ്പ് ചീഞ്ഞുപോകാം വെള്ളത്തിൽ കിടന്ന് അത് ഇറങ്ങി പോവണമെങ്കിൽ തന്നെ നല്ല പാട് ആണ് ഓക്കെ അപ്പോൾ ആ സമയത്തും കുറേ കുറേ പ്രശ്നങ്ങളുണ്ട് അതേപോലെ വേനൽക്കാലം വന്ന് വരൾച്ച വഴി വെള്ളം ഉണ്ടാവാത്ത തടസ്സം പിന്നെ അതുവഴി അത് കൃഷിക്ക് ബാധിക്കും കൃഷി ചെയ്യാൻ പറ്റില്ല അത് പിന്നെ വേറെ കുറേ സ്ഥലത്തുനിന്ന് ലോങ്ങിൽ നിന്ന് കൊണ്ടുവന്നാലേ കൃഷി ചെയ്യൽ നടക്കുള്ളൂ അതേപോലെ ചുരുളികാറ്റ് വന്ന് നമ്മുടെ വാഴ മറിഞ്ഞ് വീഴും അതേപോലെ റബ്ബർ റബ്ബർ മരം അങ്ങനെ മരങ്ങളായിട്ട് ബന്ധപ്പെട്ട കൃഷികളെല്ലാം പോയി അതേപോലെ നെല്ല് പോകും മഞ്ഞുകാലത്ത് കൃഷിക്കാർക്ക് പണിയെടുക്കാനുള്ള ബുദ്ധിമുട്ടും ബാക്കിയെല്ലാ സംഭവങ്ങളുമുണ്ട് പിന്നെ പ്രകൃതി തന്നെ ഓരോ കാലാവസ്ഥയ്ക്ക് ഓരോ ചെയിഞ്ച് അനുസരിച്ച് ഓരോരോ കൃഷി സംഭവങ്ങൾ മാറ്റുന്നുണ്ടെങ്കിലും ചില സ്ഥലങ്ങളിൽ നമുക്കത് എന്താണ് പ്രയോജനപ്പെടുത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം ഓരോ സ്ഥലത്തും ഓരോ കാലാവസ്ഥ കാരണമാണ് പറയുന്നത് കാരണം കാണുന്നത് ഓക്കെ